മൃഗവളര്ത്തലില് കര്ഷകര് അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ആണ് ഒന്ന് വന്യമൃഗം രണ്ട് കാലാവസ്ഥ മൂന്ന് അസുഖങ്ങൾ ഒന്ന് കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് മഴക്കാലം അല്ലെങ്കിൽ ഈ തണുപ്പ് സമയങ്ങളിൽ മഴക്കാലത്തേ അപേക്ഷിച്ച് നമുക്ക് മൃഗങ്ങള്ക്കുള്ള കൂട് വളരെ സ് സേഫ്റ്റി ആയിരിക്കണം അതിനെ മഴയിൽ നിന്നു സംരക്ഷിക്കേണ്ട രീതിക്കുള്ളതായിരിക്കണം ആയിരിക്കണം നമ്മള് ഉണ്ടാക്കുന്ന കൂട് മൃഗങ്ങള്ക്കുള്ളത് പിന്നെ വന്യജീവി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വന്യജീവിയുടെ ദുര വന്യ ജീവികളുമായിട്ടുള്ള ഉപദ്രവം വളരെ കുറവാണ് അതേ സമയം മലമ്പ്രദേശങ്ങളിലാണ് വന്യജീവികളുടെ ഉപദ്രവം വളരെ കൂടുതല് അതിനായിട്ട് നമ്മൾ നല്ല സംരക്ഷണം കൊടുക്കേണ്ടതാണ് പിന്നെ കൂടുകളും നല്ല രീതിയിക്ക് സ്ട്രോങ്ങായിട്ടാണ് കൂട് മൃഗങ്ങൾക്ക് കൂടുണ്ടാക്കേണ്ടത് പിന്നെ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും ഈ ജീവി പ്രാണികൾ വന്ന് പശുക്കൾക്കോ ആടുകള്ക്കോ കുത്തുമ്പോൾ അവയ്ക്ക് ജന്നി ജന്യ രോഗം ജന്യ രോഗവും കുളമ്പുരോഗവും ഉണ്ടാകുന്നു പിന്നെ അതേ തൊലി പുറത്തും രോഗങ്ങളുണ്ടാകുന്നു അപ്പോൾ ഇതിനു തക്കതായ ഡോക്ടറെ കാണുകയും അതിന് വേണ്ട പ്രതിവിധികള് നല്കുകയും മരുന്ന് നല്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വേപ്പെണ്ണ അല്ലാതെ മറ്റു രീതിയിലുള്ള എണ്ണകള് ഉപയോഗിച്ച് പിന്നെ തൊലി പുറത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടും പിന്നെ ഈ കീടങ്ങള് വന്ന് കുത്തുന്നതും നമുക്ക് ഒരു സ്കിന്നില് നിന്നുണ്ടാകുന്ന അസുഖങ്ങള് കുറക്കാന് സാധിക്കുന്നു പിന്നെ എല്ലാ മൃഗങ്ങൾക്കും തക്കതായ സമയത്ത് വെറ്റിനറിയുടെ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ ഈ ഡോക്ടറെ കിട്ടാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് പ്രയാസമായിരിക്കും അങ്ങനെ നമുക്ക് ജീവികളുടെ മരണം വരെ സംഭവിക്കാൻ സാധിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ മൃഗങ്ങളെ ആരുടെ കൈയില് ഏല്പ്പിക്കുമെന്ന് ഇപ്പോള് വീട്ടില് നിന്ന് എല്ലാവരും പോകേണ്ട ഒരു സാഹചര്യമാണ് വരുക എന്നുണ്ടെങ്കില് നമ്മള് അതിനായിട്ട് ഒരു വ്യക്തിയെ ജോലിക്കുവേണ്ടി തിരഞ്ഞെടുക്കും എന്നിട്ട് അവർക്ക് അതിന്റേതായ വേതനം നൽകും ഇപ്പോൾ ജോലിക്ക് ആരെയും കിട്ടുന്നില്ല എന്ന സാഹചര്യത്തിൽ ആണെങ്കിൽ നമ്മളി വീടുകൾ നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ ഒരു വ്യക്തിയെ ആ വീട്ടിൽ ഉണ്ടായിരിക്കും ബാക്കിയുള്ളവർ സ് വീട് മാറിനിൽക്കുന്ന് വീട് മാറിപ്പോകേണ്ട അവസ്ഥ വരുകയാണെങ്കിൽ അല്ലെങ്കില് അങ്ങനെ മാറി നിൽക്കും അല്ലാതെ ഒറ്റയ്ക്ക് നോക്കാൻ ആരുമില്ലാതെ ഒരിക്കലും വന്യ മൃഗങ്ങളെ മൃഗങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടു കൊണ്ട് പോകുന്നതല്ലായിരിക്കും അത് ഒരു സേഫ്റ്റി അല്ല അതിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഒന്നെങ്കിൽ ജോലിക്ക് ആളെ നിര്ത്തുക ഇല്ലെങ്കില് നമ്മളില് ഒരാൾ റി വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുക അതിന് സമയം സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും കൊടുക്കാനും വേണ്ടി മഴ സമയങ്ങളിൽ ആണെങ്കിൽ നേരത്തെ തന്നെ അതിന് ആവശ്യമായ തീറ്റകള് ശേഖരിച്ചു വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ നമ്മുടെ വാഹന സൗചര്യം നമ്മുടെ പ്രദേശങ്ങൾ ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ വാഹനസൗകര്യം വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് തീറ്റകള് ശേഖരിച്ചു വയ്ക്കണത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മഴ സമയങ്ങൾക്ക് മുമ്പ് തന്നെ തീറ്റകള് ശേഖരിച്ച് തക്കതായ ഒരുക്കത്തോടെ വയ്ക്കേണ്ടത് നല്ലതാണ് അത് ഒരു പ്ലസ് പോയിൻറ്റായിട്ടാണ് കാണുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് ഇങ്ങനെ അങ്ങനെ ചില കാര്യം ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതും പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് നമ്മൾ നേരത്തെ ചെയ്തു വയ്ക്കേണ്ടതുമാണ്